അടുത്തുള്ള പട്ടണങ്ങളിലേക്കോ ഗ്രാമങ്ങളിലേക്കോ അതുപോലെ സംസ്ഥാനങ്ങളിലേക്കോ പോകുമ്പോൾ ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും എന്നു വച്ചാൽ നമ്മൾ സുരക്ഷിതയാണെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത് അല്ലെ അപ്പം രാത്രി കാലഘട്ടങ്ങളിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഇപ്പോൾ എപ്പോഴാണ് ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ എപ്പോഴാണ് നമ്മളവിടെ എത്തിച്ചേരുക എങ്ങനെ ആയിരിക്കും നമ്മൾ ബസ്സിലാണ് പോകുന്നതെങ്കിൽ ബസ്സിലുള്ള യാത്രക്കാരൊക്കെ എങ്ങനെയായിരിക്കും നമ്മളോട് പെരുമാറുക അങ്ങനെ ഒക്കെയുള്ള ഒരു ചിന്താഗതി പൊതുവേ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ സുരക്ഷിതത്ത്വം ആശങ്കയും നമുക്ക് ഉണ്ടാവാറുണ്ട്